ഹലോ ജനേഷ് സൂപ്പർ മാർക്കറ്റല്ലേ ആ അവിടെ ഓഫറുകൾ ഉണ്ടോ ഈ പച്ചക്കറി പച്ചക്കറികൾക്കൊക്കെ നല്ല ഓഫറാണോ ആണല്ലേ അതെയോ ആ ആ ആ ആ ആ ഡെലിവറി സൗകര്യം ഉണ്ടോ അവിടെ ആ ആ കൊണ്ടുത്തരും അല്ലേ ആ പിന്നെ അതിന് കുറേ സാധനങ്ങൾ എടുക്കണോ അതോ കുറച്ച് എടുത്താലും കൊണ്ടുത്തരുമോ അതെയല്ലേ പിന്നെ ഈ ധാന്യ പരിപ്പ് വർഗ്ഗങ്ങൾക്കൊക്കെയോ ഓഫറുണ്ടോ അതെ ആ ഇതിപ്പം എല്ലാ ദിവസസവും ഉണ്ടോ അതോ ആഴ്ച്ചയിൽ രണ്ട് ദിവസമാണോ അതെയല്ലേ ഓക്കെ മാം ഓക്കെ പിന്നെ ആ ഞങ്ങൾക്കൊന്ന് വരാനായിരുന്നേ അവിടെ ആ ആ ഇത് ഓപ്പൺ എത്ര മണി വരെ ഉണ്ട് രാവിലെ മുതൽ ആ അതേലെ ആ ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ ഫ്രഷ് പച്ചക്കറി ഐറ്റംസ് അല്ലേ ആ ആ ആ അത് ഞങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടോ

ആയിക്കോട്ടെ അപ്പം ഞങ്ങൾ വരുന്നയായിരിക്കും കേട്ടോ എന്ന് വേറെ വേറെ ഓഫറുണ്ട് പഞ്ചസാരയ്ക്കൊക്കെ ഓഫറുണ്ടോ

അതേലെ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏതൊക്കെ ദിവസമാണ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആ ആ എന്നാൽ ശരി ഓക്കെ വരാം